ഹലോ ആ പിന്നെ ലൈസൻസ് വേണ്ടീനു ലൈസൻസിൻ്റെ കോപ്പി ഡീജിലോക്കറിൽ കിട്ടണില്ല എന്താ ഡീജലോക്കറിൽ എന്താണ് കിട്ടാത്തത് എങ്ങനെയൊക്കെ കിട്ടാതെ ഭയങ്കര അത്യാവശ്യമാണല്ലോ

ഡിജിലോക്കറിൽ കിട്ടാൻ ഇപ്പം എന്താ ചെയ്യുക എനിക്കൊരു തൊഴിലിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടീനു പിന്നെ വീട്ടിൽ എത്ര നോക്കിയിട്ടും കാണുന്നില്ല ലൈസൻസ് അപ്പം നമുക്ക് അതിൻറെ ഡിജിറ്റലേ് ഡിജിലോക്കറിൽ കിട്ടുമല്ലോ അത് എന്താണ് കിട്ടാത്തത് എന്താ കിട്ടാൻ ഇപ്പം എന്താണ് ചെയ്യേണ്ടി അത് ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരുമോ നമ്പറൊക്കെ റെഡി ആണ് ആപ്പ് ഒക്കെ റെഡി ആണ് ഫോണിൽ ലൈസൻസ് കിട്ടണില്ല ഒന്ന് പെട്ടന്ന് റെഡി റെഡി ആക്കി തരും നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ്സി തൊഴിലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആ ആ അ ഒന്ന് ഡ്രൈവിങ് ലൈസൻസന് എത്രയും പെട്ടന്ന് വേണ്ടീനു അതിൻ്റെ ഇത് കാണുന്നില്ല ഒറിജിനല് കാണുന്നില്ല അപ്പോൾ അതിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി ഡിജിലോക്കറിന്ന് കിട്ടുമല്ലോ അത് പക്ഷേ എന്താണെന്ന് അറിയില്ല കിട്ടണില്ല എന്താണ് ഇപ്പം ചെയ്യേണ്ടി കിട്ടാൻ വേണ്ടി സംഭവം നെറ്റ്വർക്ക ഒക്കെ ഓക്കെ ആണ് പക്ഷേ സാധനം കിട്ടണില്ല ആ ഓക്കെ ഓക്കെ സെറ്റ ആക്കിയല്ലേ ഓക്കെ ശരി ശരി ഓക്കെ താങ്ക് യൂ ആ ഓക്കെ